കൃഷി രീതിയിൽ വല്ലാത്ത മാറ്റം വന്നിട്ടുണ്ട് പണ്ടത്തെ കൃഷി രീതിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് സാങ്കേതിക വിദ്യകളുടെ അതായത് പുത്തൻ ഉപകരണങ്ങളോടുകൂടെയുള്ള കൃഷിരീതികൾ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഒരു പണ്ടുകാലത്ത് ഇപ്പോൾ വാഴനടാനും കൊയ്യാനൊക്കെയും കൊയ്യാനും ഞാർ നടാനുമൊക്കെ ഒത്തിരി ആൾക്കാർ ഇണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ യന്ത്രങ്ങളുടെ ഇതാവുമ്പോൾ അത്ര ആൾക്കാരും വേണ്ട അത്രയും ഭക്ഷണം ഉണ്ടാക്കണം നമുക്ക് ഒരു കൊയ്ത്തിന് ഇപ്പോൾ വയലിൽ പണി ആണെന്ന് വച്ചോളൂ വയലിൽ പണിക്ക് സമയത്ത് കുറെ പണിക്കാർ ഉണ്ടാകും അപ്പോൾ അവർക്ക് ഫുഡ് നമ്മൾ കൊടുക്കണം പിന്നെ പൈസ വേണം നോക്കാൻ പോകണം അങ്ങനെയൊക്കെ കുറെ ഇതുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് അവർ വരും നമ്മുടെ സമയം അവരുടെ സമയം എന്നില്ല നമ്മൾ നില്ക്കണമെന്നും ഇല്ല ഞാർ നമ്മൾ വിത്ത് പാകിയിട്ടുണ്ടെങ്കിൽ നടണമെങ്കിലും മെഷീൻ ഉണ്ട് കൊയ്യാൻ മെഷീൻ ഉണ്ട് പിന്നെ ആദ്യമൊക്കെ ഞാനൊക്കെ കുഞ്ഞീത് ആയിരുന്ന സമയത്ത് കൊയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കളത്തിൽ ഇടും കളമെന്ന് പറയുക ഒരു വലിയ വീടിൻ്റെ മുൻപിൽ സൈഡിൽ ഒരു കളം ആയിട്ടുണ്ടാകും കളത്തിൽ ഇട്ടിട്ട് ടാക്ടർ കൊണ്ട് അതിന്റെ മേത്തുകൂടി ഇങ്ങനെ അടി ഇങ്ങനെ കയറിയിറങ്ങുക അങ്ങനെയൊക്കെയായിരുന്നു അല്ലെങ്കിൽ അടിച്ചടിച്ച് വീഴ്ത്തുകയ ചെയ്യുക പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമുക്ക് കൊയ്യുന്നതിനനുസരിച്ച് തന്നെ കൊയ്ത് അതായത് നെല്ല് വേറെയും പിന്നെ പുല്ല് റൗണ്ട് ആക്കിക്കെട്ടിക്കെട്ടിക്കെട്ടി വെക്കും അപ്പോൾ പാരമ്പര്യ കൃഷിരീതി ഒക്കെ മാറി ഇപ്പോൾ പുതിയ പുതിയ കൃഷിരീതികൾ വന്നു